ഞാൻ ഡ്രോയിങ് ക്ലാസ്സിന് പോയിട്ടുണ്ട് ആദ്യമായി ഡ്രോയിങ് പഠിപ്പിക്കുന്നത് എൻ്റെ മാഷ് ചാക്കോ മാഷ് ആണ് അദ്ദേഹം ആദ്യം എനിക്കൊരു ചെടിയാണ് വരയ്ക്കാൻ പഠിപ്പിച്ചുതന്നത് അത് വളരെ എളുപ്പത്തിൽ ഞാൻ വരച്ചെടുക്കുകയും ചെയ്തു ആദ്യം വരച്ചത് അത്ര വലിയ ഭംഗി ഉണ്ടായിരുന്നില്ല പോകപ്പോകെ ക്ലാസ്സിനു പോയിപ്പോയി എൻ്റെ ചിത്രങ്ങൾ അൽപ്പം ഭംഗി കൂടാൻ തുടങ്ങി ഡ്രോയിങ് ക്ലാസ് വളരെ എളുപ്പമാണ് പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് ഹാർഡ് വർക്ക് വേണം ഡ്രോയിങ് ക്ലാസ്സിന് അവിടെ പഠിച്ചത് ഞാൻ ആദ്യമായി വരയ്ക്കാൻ പഠിച്ചത് ഒരു ചെറിയ പൂവാണ് പിന്നെപ്പിന്നെ ഞാൻ വലിയ വലിയ ചിത്രങ്ങൾ വരയ്ക്കാൻ പ്രാപ്തനായി അത് വളരെ എളുപ്പമാണ് പക്ഷെ പഠിച്ചെടുക്കാൻ വളരെ പ്രയാസമാണ് പഠിച്ചുകഴിഞ്ഞാൽ നമ്മളെകൊണ്ട് എളുപ്പമായി വരയ്ക്കാം ഞാൻ വരച്ച ചിത്രങ്ങൾ ഞാൻ ടൗണിൽ വിൽക്കുകയും എൻ്റെ വീടിനുള്ളിൽ ചിത്രീകരിക്കുകയും ചെയ്തു